നമ്മുടെ ഗ്രാമത്തിൽ ആരാധനാ മൂർത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രാമങ്ങളിൽ കുറേ അമ്പലങ്ങളും കാ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മെയിൻ അങ്ങനെ മെയിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ അടുത്തുള്ളത് എന്ന് പറയുന്നത് പറഞ്ഞാൽ ദേവി ക്ഷേത്രമാണ് പിന്നേ അപ്പുറത്ത് ഒരു ശിവൻ്റെ അമ്പലമുണ്ട് അതിൽ വന്നിട്ട് എന്ന് പറയുമ്പോൾ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ മെയിനായിട്ട് ഈ ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ടയാണ് ഉള്ളത് അതിൽ മെയിൻ അവർ രാവിലെ ഉച്ചക്ക് വൈകിയിട്ട് അങ്ങനെ മൂന്ന് രൂപങ്ങളുടെ പ്രതിനിത്യം നൽകുന്നുണ്ട് ഇപ്പോൾ ശ്രീലക്ഷ്മി ആയിട്ടും ഭഗവതിയായിട്ടും കാളിയായിട്ടും ലക്ഷ്മി സരസ്വതി ദേവിയായിട്ടും അങ്ങനെ രൂപങ്ങളിൽ ഒക്കെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അവതാരങ്ങൾ ആയിട്ട് കാണപ്പെടാവുന്നതാണ് അതിലിപ്പോൾ എന്താ പറയുക അവരുടെ രീതികൾ എന്നു പറയുമ്പോൾ അവർക്ക് ഈ മെയിനായിട്ട് പുഷ്പാഞ്ജലി കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക അവർക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പിന്നെ നോക്കാണെന്നു പറഞ്ഞാൽ അവരുടെ ആരാധന വേറെ രീതിയെന്നു പറയുമ്പോൾ പട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അവിടെ മെയിനായിട്ട് ഫേമസ് എന്നു പറയാനായിട്ട് നമുക്ക് ഈ വിജയദശമി അതായത് പുസ്തക പൂജ പഠനത്തിനാണ് അവർ കൂടുതൽ പ്രാതിനിത്യം നമുക്ക് ലക്ഷ്മി ദേവി അങ്ങനത്തെ കൂടുതൽ പഠനത്തെയാണ് നമ്മൾ അവരിലൂടെ എന്താ പറയുക പ്രാതിനിത്യം നൽകുന്നത് അങ്ങനെ പിന്നെ അവിടെ മെയിനായിട്ട് ദേവീ അം കല്യാണങ്ങൾ അതൊക്കെ നടത്താറുണ്ട് എന്തായാലും ശക്തിക്ക് ശക്തി അതായത് പ്രചോദനം ചെയ്യുന്ന ദേവിയാണ് ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അവിടെ പ്രാമുഖ്യം നൽകുന്നത്